ഹലോ മഹേഷല്ലേ എനിക്കൊരു നല്ല ഡ്രൈവറെ ആവശ്യമുണ്ട് അതിന് വേണ്ടി ഞാൻ വിളിച്ചതാണേ അതെന്താന്ന്ച്ചാൽ ഇപ്പോൾ പല അപകടങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് നല്ല ഡ്രൈവറായിരിക്കണം നിനക്കാണെങ്കിൽ എല്ലാം നല്ലോണം അറിയാലോ അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത് പിന്നെ അവിടാരാണു ഉള്ളത് നല്ല ഡ്രൈവറ് ആ മഹേഷാ ആയിക്കോട്ടെ നല്ല ഡ്രൈവറായിരിക്കണം പിന്നെ ഞാനൊറ്റക്കാണ് ഞാനൊരു പെണ്ണല്ലേള്ളൂ അപ്പോൾ അതുകൊണ്ട് കൂടെ ആരും ഇല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് കോഴിക്കോടിന്ന് വരാൻ വേണ്ടിയാണ് അപ്പോൾ നല്ല ഡ്രൈവറിണ്ടെങ്കിൽ നല്ല ഡ്രൈവറാണെങ്കിൽ നീ പറഞ്ഞ് വിട് അവരെ വാടകയൊക്കെ പറഞ്ഞ് അവരെ റെഡിയാക്കീട്ട് പറഞ്ഞ് വിട്ടാൽ മതി പിന്നെ ചുരത്തിമ്മേന്നെല്ലാം വരേണ്ടതല്ലെ അതുകൊണ്ട് കുറച്ചൊരു വിഷമല്ലേ അതുകൊണ്ടാണ് നല്ല ഡ്രൈവറെ പറഞ്ഞ് വിടണംന്ന് പറയുന്നത് ഓ എൻ്റെ എൻ്റെ നമ്പറ് പറഞ്ഞ് കൊടുത്താൽ മതി നമ്പറ് നിനക്കറിയാല്ലോ നീ പറഞ്ഞ് കൊടുത്താൽ മതി ആ ആ എന്നാൽ ശരി